ഹലോ എയർടെൽ കസ്റ്റമർ കെയർ അല്ലേ അപ്പോൾ ഞാൻ വിളിച്ചത് എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ റീചാർജിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ കണക്ഷൻ പ്രോബ്ലം കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ അത് കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ എയർടെൽ താങ്ക്സ് ആപ്പിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് എനിക്ക് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കി പറയുമോ ഓ അപ്പോൾ അത് എൻ്റെ ഫോൺ നമ്പർ കിട്ടിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എൻ്റെ ഫോൺ നമ്പർ എയിറ്റ് ടു എയിറ്റ് വൺ എയിറ്റ് വൺ ഫൈവ് സിക്സ് സിക്സ് ഫൈവ് ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ അതിൽ ഒ ടി പി വരും വന്നാൽ പറയാം ഓക്കെ ഓക്കെ ആ ഒ ടി പി വന്നിട്ടുണ്ട് അത് സീറോ വൺ ടു ത്രീ ആ ഓക്കെ ഓക്കെ അപ്പം അതിലുള്ള പ്രശ്നം എന്താണെന്ന് പറയുമോ ആ രണ്ട് മാസം മുമ്പ് റീചാർജ് ചെയ്തായിരുന്നു രണ്ട് മാസത്തേത് രണ്ട് മാസത്തേക്കുള്ള പാക്ക് മുഴുവനായിട്ട് ചെയ്തായിരുന്നു അപ്പം അതൊന്ന് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ അല്ല രണ്ട് മാസം മുമ്പ് ഞാൻ ചെയ്തിരുന്നല്ലോ അത് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല രണ്ട് മാസം മുമ്പ് ചെയ്തത് കഴിഞ്ഞു എന്നോ അത് ആ ഓക്കെ ഓക്കെ അപ്പം ഇനി പുതിയ റീചാർജ് ചെയ്യുകയാണോ വേണ്ടത് ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു